ഞങ്ങളുടെ സ്കൂളിൽ ലൈബ്രറി ഉണ്ടായിരുന്നു ഞാൻ പുസ്തകങ്ങൾ എടുത്തു വായിക്കാറുണ്ടായിരുന്നു കൂടുതലും എനിക്ക് വിശുദ്ധരുടെ പുസ്തകങ്ങളാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായത് വിശുദ്ധരുടെ എന്നുവെച്ചാൽ നമ്മുടെ ഞാൻ ജനിച്ച അങ്ങ് നാട്ടിലെ ചാവറയച്ചൻ ചാവറയച്ചൻ്റെ ജീവിതവും പിന്നെ അൽഫോൻസാമ്മയുടെ ജീവിതവും അങ്ങനെ ചെറിയ ചെറിയ കഥകൾ അതാണെനിക്ക് കൂടുതലും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ചാവറയച്ചനാണെങ്കിലും ആയിരത്തിത്തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തിഎണ്ണൂറ്റി അഞ്ചിൽ ചാവറ എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് ജനിച്ചത് അവിടെ ജനിച്ചു വളർന്നു അവരുടെ ഇടവക ദേവാലയമായ ചേന്നംഗിരി ആ ഇടവകയിൽ പോയി വിശുദ്ധകുർബാന അർപ്പിച്ചു അതിനുശേഷം മാന്നാനത്ത് അച്ചൻ വൈദികപഠനത്തിനായി പോയി വൈദികപഠനം പൂർത്തിയാക്കി അച്ചൻ അവിടെ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണം എന്നുള്ള ഒരാശയം കൊണ്ടുവന്നത് ചാവറയച്ചനാണ് ചാവറയച്ചൻ ഒത്തിരി നല്ല പ്രവർത്തികളും നന്മ പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്ന വിശുദ്ധ അൽഫോൻസാമ്മ ഒരുപാട് സഹനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സഹനപുത്രി സഹനപുത്രി എന്ന പേരിലറിയപ്പെടുന്ന ഇപ്പോളത്തെ ഒരു വിശുദ്ധയാണ് നമ്മുടെ അൽഫോൺസാമ്മ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകളും ഒക്കെ ചാവറയച്ചൻ വഴി സാധിച്ചിട്ടുണ്ട് വായിച്ച ആ പുസ്തകങ്ങൾ ഈ ലൈബ്രറി പുസ്തകം എന്നുപറയുമ്പോൾ നമ്മുടെ വിശുദ്ധരെക്കുറിച്ചാണ് പിന്നെ ഒത്തിരിയും വേറെ മദർ തെരേസയുടെ പുസ്തകങ്ങൾ അങ്ങനെ വിശുദ്ധരുടെ പുസ്തകങ്ങളാണ് കുടുതലും വായിക്കാനെനിക്ക് താൽപര്യം അങ്ങനെ വായിച്ചാൽ എനിക്ക് ഒത്തിരി മദർ തെരേസയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ പാവങ്ങളുടെ അമ്മ പാവങ്ങളുടെ അമ്മയായിട്ടാണ് മദർ തെരേസ അറിയപ്പെടുന്നത് മദർ തെരേസ ഒരുപാട് പാവങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് പാവങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരുപാട് നല്ല പ്രവർത്തികളൊക്കെ ചെയ്ത് ഒരു ഇതാണ് മദർ തെരേസ